ഞാൻ വാണിയമ്പലം ബസ്സ് സ്റ്റോപ്പിലുണ്ട് ഇപ്പോൾ രാത്രി ആയല്ലോ ഇപ്പം എനിക്ക് മഞ്ചേരി വരെ പോവാനാണ് ഹോസ്പിറ്റലിൽ അമ്മ അമ്മ അമ്മമ്മ ഉണ്ട് അപ്പോൾ അമ്മമ്മേനെ കാണാൻ പോവാനാണ് അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുമോ പിന്നെ അവിടെ പോയി വരാൻ എത്ര പൈസയാവും ഒരു ആ അഞ്ഞൂറ് ഉറുപ്യയിൽ ഒതുങ്ങുമോ പിന്നെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരികയും വേണം നിങ്ങളൊപ്പം ഇങ്ങോട്ടുതന്നെ കൊണ്ടുവന്ന് ആക്കുകയും വേണം അതിനൊക്കെ ഇപ്പോൾ ഇത്രയും രാത്രി ആവുമോ കാരണം പൈസ കൂടുമോ എന്നറിയില്ല പിന്നെ എനിക്ക് വിശക്കുകയാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം വരാനാണ് നിങ്ങൾക്കിപ്പോൾ പറ്റുമോ എന്നറിയാനായിരുന്നു പൈസ എത്രയാണ് വരുന്നു വരാൻ പൈസ കുറച്ചൊക്കെ ഇതാണ് അപ്പോൾ എത്ര വരും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു